ഹലോ ഫ്ലിപ്കാർട്ടാണോ ആണോ അ ഞാൻ ഒരു സ്കെർട്ടിന് ഓഡർ ചെയ്യാനായിരുന്നു ഒരു മുപ്പത്തിയെട്ടു സൈസുള്ള അതിന് ഒരു ബ്ലൂ ബ്ലൂ കളറുള്ളതു വേണം ബ്ലു അതേൽ ചെറിയ പ്രിൻറ്റുള്ളത് അപ്പോൾ അതിന് മുപ്പത്തിയെട്ട് ഞങ്ങൾ വേറെ നോക്കിയിട്ട് മുപ്പത്തി എട്ടിൻറ്റേതു കാണുന്നില്ല അപ്പോൾ മുപ്പത്തിയെട്ടു സൈസുള്ള ഒരു ബ്ലൂവെ ചെറിയ പ്രിൻറ്റുള്ള ഒരു പാവാട വേണമായിരുന്നു അതു കിട്ടുവാൻ വല്ല ഇതും ഉണ്ടോ ഇട്ടുതരുമോ ഞങ്ങളുടെയീ ആ ഇട്ടുതരുമോ ഫോൺ നമ്പറോ ഒൻപത് ഏഴ് നാല് ഏഴ് ഏഴ് ഏഴ് നാ മൂ നാല് ഏഴ് ആറ് അഞ്ച് നമ്പറല്ലേ അതൊന്നു കാണിക്കണേ അ ഓക്കെ ഓക്കെ ഒ ശരി ശരി ശരി ശരി ഓക്കെ ടാങ്ക് യൂ മതി മതി മതി